ആ ആ ആ പ്രോംറ്റഡ് ഡ്രൈവിങ് സ്കൂളാണോ ആശാനെ ആശാനേ എനിക്ക് ഡ്രൈവിങ് പഠിക്കണമമെന്നു വലിയ ആഗ്രഹമുണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാന് എന്തൊക്കെയാണ് അതിൻ്റെ ആ ആ ഞാന് ഇവിടെ തുരുത്തിയിലുള്ള ഒരു സജിയാണ് ഏ് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഏ ആ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാന് ലൈസൻസ് എടുക്കാന് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഫോർ വീലർ വേണം ടു വീലറും വേണം ലേണേസ് എടുക്കണമെങ്കില് ഞാനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ എത്ര രൂപയാവും നിങ്ങളുടെ ഫീസ് ആയിരത്തി അഞ്ഞൂറ് ശരി ഓക്കെ അപ്പോള് എനിക്ക് ഏതു സമയം ആയിരിക്കും സാര് അനുവദിക്കുന്നത് എനിക്കൊരു എട്ടു മണി തൊട്ട് പത്തു മണി വരെ സമയാമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് വന്നാല് എനിക്കു നല്ലതായിട്ട് പഠിപ്പിക്കാനായിട്ടു പറ്റുമോ ഓക്കെ ഓ ഓക്കെ ആ സാറേ എനിക്ക് ആ എനിക്കു കുറച്ചു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ സമയം സാറിനോട് ചോദിച്ചത് മറ്റു കാര്യങ്ങള് വീട്ടില് ജോലികളൊക്കെ കുറച്ചു തീർക്കാനുണ്ടായിരുന്നു ആ ഓഫീസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സാർ ഞാന് അവിടെ വരുമ്പോഴത്തേക്ക് അഥവാ എനിക്ക് ആ കിട്ടിയില്ലെങ്കില് സാറിനെ വിളിച്ചിട്ട് ഓഫീസിൻ്റെ ലൊക്കേഷൻ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ ആ സാറിൻ്റെ അടുത്തേക്കു വരാം

ആ സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ എനിക്ക് എത്ര മാസം കൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തുതരാൻ പറ്റും ആ ആ അല്ല സാറെ വയ്ക്കരുത് വയ്ക്കരുത് കാര്യമെന്നുവച്ചാല് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിയമങ്ങളനുസരിച്ച് നല്ലവണ്ണം പഠിച്ചിട്ട് ആ ഹലോ